ഞാൻ പൊതുവായിട്ട് മലയാള ഭാഷയാണ് മിക്കവാറും ദൈനംദിന സംഭാഷണങ്ങളിൽ പറയുന്നത് വീട് വീട്ടിലാണെങ്കിലും എല്ലാം മലയാളഭാഷയാണ് പറയുന്നത് പിള്ളേരെയാണെങ്കിൽ മോളെ മോനെയെന്നൊക്കെ വിളിക്കും അല്ലെങ്കിൽ വാടാ എടീ പോടി എന്നൊക്കെ വിളിക്കും പ്രായമായവരെ ആണ് കുറച്ച് ഇച്ചിരി കൂടെ ഒരു ഏറ്റവും പ്രായമുള്ളവരെ ആണേ അമ്മച്ചി അച്ചായാന്നൊക്കെ വിളിക്കും അല്ലെങ്കിൽ ഇച്ചിരി കൂടെ പ്രായം കുറഞ്ഞവരെ ആണേ ചേട്ടാ ചേച്ചിയെന്നൊക്കെ വിളിക്കും അതുപോലെ തന്നെ ഭർത്താവിനെ ആണേലും ചേട്ടാ അല്ലെങ്കിൽ പേര് ബിജു എന്നൊക്കെ വിളിക്കും അത്രയേയുള്ളു അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ചു വലിയ ഭാഷയും ഇങ്ങനെ പൊതു ഇല്ലായിരുന്നില്ല നമ്മൾ സാധാ സാധാരണ ഞങ്ങളൊരു നാട്ടിൻപുറത്ത് താമസിക്കുന്നാളാണ് അപ്പം നാട്ടിൻപുറത്തിൻറ്റേതായ രീതിയിലുള്ള ഭാഷ മലയാളത്തിൽ ഉപയോഗിക്കും ചേട്ടാ ചേച്ചി അച്ഛാ അമ്മച്ചി അങ്ങനെ ആൻറ്റി അല്ലേ ചേച്ചി മാ ചേട്ടായെന്നൊക്കെ ഉള്ള ഭാഷയാണ് നമ്മൾ മിക്കവാറും എല്ലാം ഉപയോഗിക്കുന്നത് പിന്നെ ഒരുപാട് ഈ വലിയ ദൂരോട്ടൊക്കെ അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനൊന്നും എത്രയാണെന്നു പറഞ്ഞാലും പ്രായമായുള്ളവരെ നമ്മൾ ഒരുതരത്തിലും അവരെ വെറുപ്പിക്കാത്ത രീതിയിലുള്ള മലയാള സംഭാഷണങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് ചേട്ടൻ ബഹുമാനം കൊടുത്തിട്ടാണ് അവരുമായിട്ട് ഉപയോഗിക്കുന്നത് ചേട്ടാ ചേച്ചി അച്ഛാ അമ്മ മമ്മീ അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് അത്രയേ അങ്ങനെയൊക്കെയുള്ള ഭാഷകളാണ് മുതിർന്നവരെ എപ്പോഴും നമ്മൾ അതിൻറ്റേതായ രീതി കണ്ടാണ് മക്കളെ ആണെങ്കിൽ ചിലപ്പോൾ പേര് വിളിക്കും അല്ലെങ്കിൽ മോളെ മോനെ അങ്ങനെയൊക്കെ വിളിക്കും അല്ലെങ്കിൽ എടീ ഇങ്ങോട്ടൊന്നു വന്നേ ഇത് അത്യാവശ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ കിച്ചണിലൊക്കെ നിൽക്കുകയാണെങ്കിൽ എടീ ഇങ്ങോട്ടൊന്നു വന്നേ ഇതൊന്ന് ചെയ്തേ അല്ലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അമ്മയോടാണേൽ അമ്മേ ഇതൊന്നു ചെയ്യാമോ അല്ലെ എടുക്കാമോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെയുള്ള സംഭാഷണങ്ങളാണ് നമ്മൾ മിക്കവാറും നാട്ടിൻപുറത്തിൻറ്റേതായ രീതിയിലുള്ള സംഭാഷണങ്ങളാണ് കൂടുതലും മലയാള ഭാഷ തന്നെയാണ് ഉപയോഗിക്കുന്നത്